പണ്ടുകാലങ്ങളിൽ വയനാട്ടിലെന്നു പറയുമ്പോൾ എന്താ പറയുക വീടുകളും ആയാലും കെട്ടിടങ്ങളൊക്കെയായാലും വളരെ കുറവായിരുന്നു വീടുകളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഓല കൊണ്ടു മേഞ്ഞതും ഈ ചളികൊണ്ടുണ്ടാക്കിയ വീടുകളൊക്കെയായിരുന്നു കൂടുതലും വയനാടുകളിൽ കണ്ടുവന്നിരുന്നത് എന്നാൽ ഈ കാലം മാറിയതിനോടനുസരിച്ച് ഇപ്പോൾ വാർക്കവീടുകൾ ഒരുപാട് കെട്ടിടങ്ങൾ ഇപ്പോൾ ടൗൺ ഏരിയകളൊക്കെ കുറേയായി പിന്നെ ഹോട്ടലുകളൊക്കെയെന്നു പറയുമ്പോൾ പണ്ടെന്നു പറഞ്ഞാൽ ഈ ഷീറ്റൊക്കെ മറച്ചു കെട്ടിയ ഇതൊക്കെയായിരുന്നു ഓല മേഞ്ഞതും അങ്ങനത്തെയൊക്കെ ആയിരുന്നു ഹോട്ടലുകളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് ചായക്കടപോലുള്ള സെറ്റപ്പ് എന്നാൽ ഇന്നിപ്പോഴെന്ന് പറയുമ്പോൾ വല്യ വല്യ കെട്ടിടങ്ങളൊക്കെ ആയി ബഹുനില കെട്ടിടങ്ങളൊക്കെയാണിപ്പോൾ വല്യ വല്യ ഹോട്ടലുകളൊക്കെ വന്നു വയനാട്ടിലും ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ വല്യ വല്യ കടകൾ വല്യ വല്യ ഇതൊക്കെയായി പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വല്ലാണ്ട് മാറി റോഡുകളൊക്കെന്നു പറയുമ്പോൾ നല്ല റോഡുകളായി നല്ല എല്ലാം നല്ല റോഡ് അടിപൊളി റോഡുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കണ്ടു വരുന്നത് അതുപോലെ എല്ലാത്തിലും തന്നെ വയനാട് വല്ലാണ്ട് വികസിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലായിടത്തും തന്നെ വയനാട് എന്താ പറയുക വയനാട്ടിൽ എല്ലായിടത്തും തന്നെ നല്ല നല്ല വികസനങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്